മാതൃഭാഷയിൽ അല്ലാതെ വായിച്ചിരിക്കുന്ന ബുക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഞാൻ ചെറുപ്പത്തിൽ വായിച്ച ഒരു ബുക്ക് ആണ് ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു ബുക്ക് ആണ് അത് പറയുമ്പോൾ ആ എനിക്ക് ആ നമ്മുടെ മലയാളത്തിൽ വായിച്ചത് കൊണ്ടായിരിക്കണം അതെനിക്ക് അത്രയും വലിയൊരു ഹൊറർ ആയിട്ടുള്ള ഒരു ഫീലിങ് തോന്നിയില്ല ആ അത് ആ ഭാഷയിൽ തന്നെ വായിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചുംകൂടി ഒരു ഫീലിൽ വായിക്കാൻ പറ്റുമായിരുന്നു ആ ഹൊറർ ഫീലിങ് കുറച്ചുംകൂടി കൂടുതൽ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി മലയാളത്തിൽ വായിച്ചപ്പോൾ എനിക്കത്രയും ഒരു ഫീലിംഗ് ഹൊറർ ഫീലിങ് തോന്നിയില്ല വളരെ നല്ല കഥയാണ് എന്നിരുന്നാൽ പോലും ആ ഒരു ഇംഗ്ലീഷിൽ വായിക്കുന്ന അത്രയും ഒരു ഞാൻ രണ്ടും വായിച്ചിട്ടുണ്ട് ബട്ട് ഇംഗ്ലീഷിൽ വായിക്കുന്ന ഒരു ഹൊറർ ടച്ച് മലയാളത്തിൽ എനിക്ക് അത്രയും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ലോകത്തിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ബെന്യാമിൻ്റെ ആട് ജീവിതം എന്ന് പറയുന്ന ബുക്ക് ആണ് അതിപ്പോൾ നമ്മൾ റീസെൻറ് ആയിട്ട് മൂവി ആയിട്ടും റിലീസ് ചെയ്തിട്ടുണ്ട് ഒരു പച്ചയായ മനുഷ്യൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു ജീവിതകഥയാണ് വരുന്നത് എല്ലാ പ്രവാസികളും പ്രവാസികൾ മാത്രമല്ല എല്ലാ മനുഷ്യരും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് ബുക്ക് തന്നെയാണ് ബെന്യാമിൻ്റെ ആട് ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളും അവിടെനിന്ന് സർവൈവ് ആയി പോകുന്ന കഥകളും അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെ എഴുതി ഒരു ബുക്ക് ആക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭയങ്കര ഫീൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ്സ് വേരി